ഏകദേശം ഒരു രാത്രിയാണ് നേരം ഏകദേശം ഒന്ന് ഇരുപത്തി രണ്ടൊക്കെ ആയിട്ടുണ്ടാവും മൊബൈലില് നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഒരു ശ്രദ്ധ മനസ്സിലേക്കു വന്നത് ഏകദേശം ലാൻഡ് ലൈന് കണക്ഷൻ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് കട്ട് ചെയ്യാൻ പോകുന്ന സ്ഥിതിയിലാണ് അതിൻ്റെ ബില്ല് വരാത്തതാണ് പ്രശ്നം ഞാൻ കുറേ ആലോചിച്ചു അതാണ് ഞാനുടനെ വീട്ടിൽ പരിശോധിച്ചു അവിടൊന്നും പോസ്റ്റില് വന്നിട്ടില്ല അതാണ് ഓർമ വന്നത് അപ്പോള് ഞാൻ കഴിഞ്ഞ മാസമാണ് വീട് മറിയത് പക്ഷേ ലാന്ഡ് ലൈൻ കമ്പനിയിലേക്കു പുതിയ വിലാസം ഞാൻ അറിയിക്കാനായി മറന്നുപോയിരുന്നു പഴയ വിലാസത്തിലേക്കാണ് ഇപ്പോഴും ലാൻഡ് ബില്ല് അയക്കുന്നത് അതിനാലാണു കാലതാമസം സംഭവിച്ചത് വേഗത്തിൽ ഇക്കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചു ഞാന് ഏതായാലും അവരുടെ കസ്റ്റമർ നമ്പർ നമ്പർ കസ്റ്റമർ നമ്പർ തപ്പിയെടുത്തു എട്ട് അഞ്ച് ഒന്പത് പൂജ്യം എട്ട് ഒന്പത് ഒന്പത് ഒന്ന് പൂജ്യം പൂജ്യം പൂജ്യം എന്ന നമ്പർ ആ നമ്പറിലേക്കു വിളിച്ചു ഒരു മെഷീൻ വോയിസിനുശേഷം ഒരു പ്രതിനിധിയുമായി എനിക്കു സംസാരിക്കാൻ സാധിച്ചു ഹലോ ഞാന് ലാൻഡ് ലൈൻ ബില്ല് ഇപ്പോഴും സമയം തെ കിടക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ രണ്ടു മാസമായി ഇത്തിരി വൈകിയിരുന്നു അതു നന്നായി കേട്ടു ഞാനിങ്ങനെ തുടർന്നു പറഞ്ഞു എൻ്റെ വീട്ടു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനാല് എൻ്റെ പഴയ എന്താണ് അഡ്രസ്സിലേക്കാണ് ലാന്ഡ് നമ്പർ വരുന്നതെന്നു കാരണം പറഞ്ഞു ഓക്കെ സാർ അവര് ശരി പറഞ്ഞു അവർ പുതിയ അഡ്രസ്സ് ചോദിച്ചു വാങ്ങി അതിലേക്കു മാറ്റം വരുത്തി ഓക്കെ ഞാനയളോട് താങ്ക്സ് പറഞ്ഞു അവസാനിച്ചു